എന്തായാലും നമ്മുടൊരു എന്താ പറയുക നമ്മുടൊരു കേരളത്തിലെ പ്രധാനപ്പെട്ടൊരു തൊഴിൽമേഖല എന്ന് പറയുന്നതുതന്നെ കൃഷിയാണ് പണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നമ്മള് കൂടുതലും രാസവളങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കൃഷിരീതിയാണ് നമ്മൾ അവലംബിച്ചുകൊണ്ട് വന്നത് പക്ഷേ ഇപ്പോൾ നമ്മള് നൂതനമായുള്ള സാങ്കേതികവിദ്യകള് നമുക്ക് ലഭ്യവായിട്ടുണ്ടല്ലൊ അപ്പം അതിലേ അപ്പോൾ നമ്മള് പറയുക എന്ന് വെച്ചാൽ ഒന്നാമത്തെ തന്നെ എനിക്ക് തോന്നുന്നു മണ്ണ് പരിശോധന അതായത് പലപ്പൊഴും എനിക്ക് താൽപ്പ കുറച്ച് കൃഷിയില് താൽപ്പര്യം ഉള്ളത് നമ്മളങ്ങനെ ചിലസമയത്ത് വിത്തുകളൊക്കെ നട്ട്കഴിഞ്ഞുകഴിഞ്ഞാല് ഒര് പ്രാവശ്യം ഞാനിങ്ങനെ ഞങ്ങള് തക്കാളി വിത്തൊക്കെ പാകിയായിരുന്നു പക്ഷേ ഇങ്ങനെ ആർത്തലച്ച് വന്നെങ്കിലും അത് എന്താ പറയുക ഒരു പൂ പോലും പൂ കുത്തിയിരുന്നു പക്ഷെ അതിന് ശേഷം അതില് അതിങ്ങനെ അവിഞ്ഞ് പോകുകയാണ് ചെയ്തത് അപ്പഴാണ് പറയണെ മണ്ണിന് ഭയങ്കര അമ്ലത്വം അതായത് അസിഡിറ്റി ഉണ്ടെന്ന് അങ്ങനെയാണ് മനസിലായത് അപ്പം നമ്മൾ ഇങ്ങനെ സുഡോണോ മിക്സക്കെ മിക്സ്സെയ്തിട്ട് ഒര് പക്ഷേ അത് പാകിയിരുന്നെങ്കില് ഇങ്ങനെ വരില്ലായിരുന്നു അപ്പം നമുക്ക് ആ മണ്ണ് പരിശോധനയെന്ന് പറയുന്നത് അവിടൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് അതൊക്ക് ഇപ്പഴത്തെ നൂതനടെക്നോളജീയില് വന്നേക്കുന്നതാണല്ലൊ മണ്ണ് പരിശോധിക്കുക നമുക്ക് മണ്ണിൻ്റെ നിലവാരം മനസിലാക്കാനും അപ്പം ആ മണ്ണിന് യോജിച്ചിട്ടുള്ള വിളകളെന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ട് പിടിക്കാനും അപ്പം അതില് ഇപ്പം ശാസ്ത്രീയമായിട്ട് മണ്ണ് പരിശോധിച്ച് കഴിഞ്ഞാല് വേണ്ട അളവിൽ രാസവളങ്ങളും കൂടുതൽ ജൈ എന്ന് വെച്ചാൽ രാസവളങ്ങള് വളരെക്കുറഞ്ഞ രീതിയിൽ രാസവളങ്ങളുപയോഗിക്കും കൂട്തലായിട്ട് ജൈവവളങ്ങളുപയോഗിച്ചിട്ട് നമുക്ക് കൃഷിയെ കൃഷിയുടെ അളവ് നല്ല രീതിയില് കൃഷി ചെയ്യാൻ പറ്റും മണ്ണ് പരിശോധന നടത്തുവാണെങ്കിൽ പിന്നെ വേറെ ഒരെണ്ണം പറയുന്നത് റോബോട്ടിക്സ് എന്ന് പറഞ്ഞിട്ടൊര് സംഭവം അതായത് ഇപ്പം നമ്മൾ കൂടുതലും എന്താ പറയുക ഹ്യൂമ ഹ്യൂമൻ റിസോഴ്സസ്സ് നമ്മള് തന്നെയാണ് ലേബറായിട്ട് നമ്മൾ നമ്മൾ തന്നെയാണല്ലൊ വർക്ക് ചെയ്യുന്നത് ആ സ്ഥാനത്ത് നമ്മള് റോബോട്ടിക്സിനെയക്കെ പുതിയ ടെക്നോളജിയനുസരിച്ച് റോബോട്ടിക്സ്സ് റോബോട്ടിനെയൊക്കെ നമ്മള് കൊണ്ടുവരികയാണെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ പല സ്ഥലങ്ങളും ആദ്യമൊക്കെ ഞങ്ങളെയൊക്കെ സംബദ്ധിച്ച് നെൽകൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ കൊയ്യാൻ പോയിട്ടുണ്ട് പക്ഷെ ഇപ്പം മെഷീനാണ് മെഷീൻ വന്നിട്ടാണ് കൊയ്ത്ത് കൊയ്ത് എന്താ പറയുക പാടത്ത് ഇത് ചെയ്യുന്നതൊക്കെ ശെരിക്കും പറഞ്ഞ് കഴിഞ്ഞാലത് കൊയ്ത് അതിൻടുള്ളിലിട്ടിട്ട് ശെരിക്ക് നമുക്ക് നെല്ല് വേർതിരിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ പണ്ടിങ്ങനെയൊന്നുമല്ലായിരുന്നു പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മള് കറ്റ എന്താണ് പറയുന്നത് നെല്ല് കൊയ്ത് പാടത്ത് വെച്ചിട്ട് തന്നെ തലച്ചുമടായിട്ട് കൊണ്ട് വീട്ടില് വന്നത് മെതിച്ച് അങ്ങനെയൊക്കെ നെല്ല് വേർപ്പെടുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പം അങ്ങനെയല്ല നമ്മള് അ മെഷീനുപയോഗിച്ചിട്ട് കൊയ്ത് ആ പാടത്ത് വെച്ച് തന്നെ നമുക്കത് വൈക്കോലും നെല്ലും വേർതിരിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പം അത് മനുഷ്യരാണ് ആ മെഷീൻ പ്രവർത്തിക്കുന്നത് ഈ സ്ഥാനത്ത് റോബോട്സ്സ് വരികയാണെങ്കിൽ മനുഷ്യരുടെ അത്രെ അധ്വാനം കുറയും ഫിസിയ്ക്കൽ ലേബറ് കുറയുന്നു കുറയാനുള്ള ടെക്നോളജിയാണ് അതുപോലെ ഓരോ മേഖലകളിൽ അതായതിപ്പം നിലം ഉഴുന്നതിനു ട്രാക്ടർ ഉപയോഗിക്കുന്നു ഈ ട്രാക്ടറ് പ്രവർത്തിക്കാനായിട്ട് റോബോട്സ്സിനെ ഉപയോഗിക്കുവാണെങ്കിൽ അവിടെ മനുഷ്യരുടെ അധ്വാനം കുറയുകയാണ് ചെയ്യുന്നത് അതൊരു ടെക്നോളജിയാണ് നമ്മള് വിളകൾ വർധിപ്പിക്കാൻ അത് നമ്മുടെ കാർഷിക വിളകൾ വർധിപ്പിക്കാനും അതിൻ്റ അളവ് കൂട്ടാനുമൊക്കെ നമുക്ക് സഹായിക്കുന്ന ഒരിതാണ് പിന്നെ പറയുന്നത് കാ ഈ ഇപ്പഴത്തെ നൂതനടെക്നോളജിയൊക്കെ ഉപയോ ഉപയോഗിച്ചിപ്പം നമ്മുടെ ഉപ ഇതൊക്കെ വഴി സാറ്റ്ലൈറ്റ് വഴി നമുക്ക് എന്താ കാലാവസ്ഥവ്യതിയാനങ്ങളെ കുറിച്ച് അറിയാൻ പെട്ടെന്ന് പറ്റുന്നുണ്ട് അപ്പം അതിന് അനുസരിച്ചാണ് കാലാവസ്ഥയ്ക്ക് അനുസൃതമായ വിളകൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാനും കഴിയും എന്ന് വെച്ചാൽ അതിനോട് പൊരുത്തപ്പെട്ട് പോകുന്ന വിളകളാണ് കാലാവസ്ഥക്കനുയോജ്യമായിട്ട് ആ കാലാവസ്ഥ വ്യതിയാനത്തെ ചെറുത്ത് നിൽക്കാൻ പറ്റുന്ന നല്ല ഉൽപ്പാദനശേഷിയുള്ള വിത്തിനങ്ങള് നമുക്ക് ഉൽപ്പാദിപ്പിച്ചുനോക്കാൻ നമ്മുടെ വിളകൾ വർധിപ്പി വിളകളുടെ തോത് വർധിപ്പിക്കാനായിട്ട് കഴിയും പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ നല്ല അത്യുൽപ്പാദനശേഷിയുള്ള വിത്തുകളൊക്കെ ഇപ്പോൾ സങ്കരയിന വിത്തുകളൊക്കെ നമുക്ക് എല്ലാ മെ എല്ലാത്തിൻ്റയും തന്നെ സങ്കരയിന വിത്തുകളൊക്കെ നമുക്ക് നാടൻ വിത്തുകളും സങ്കരയിന വിത്തുകളും നമുക്ക് ലഭ്യമാണ് വിപണിയിൽ അപ്പം അങ്ങനെയുള്ള വിത്തുകളൊക്കെ ഉപയോഗിക്കുന്നതോട് കൂടി നമുക്കെന്താ നമ്മുടെ വിള ആ അതിൻ്റെ തോത് വർധിപ്പിയ്ക്കാന് പറ്റും അതുപോലെതന്നെ എന്തായിപ്പം പറയുക ഇങ്ങനെ ഈ കീടാണുക്കളോട് ചെറുത്ത് നിൽക്കുന്നതും പിന്നെന്താ കൂടുതൽ കാ കാലാവസ്ഥവ്യെതിയാനങ്ങളോട് പൊരുത്തപ്പെട്ടു പോകുന്നതുമായ നാണ്യവിളകൾ വിളകൾ നമുക്ക് വിളയിച്ചെടുക്കാന് പറ്റും അപ്പം അങ്ങനെയൊക്കെ ഇനിയും ഇതൊക്കെയാണ് നമ്മുടെ നൂതന ഇതെല്ലാം ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ നമ്മുടെ കൃഷി ഇതും അതൊക്കെ വർധിപ്പി ഇത് വിളകള് വർധിപ്പി ഇത് വിള കാർഷികവിളകള് വർധിപ്പിക്കാനുള്ള ഒരിത് പിന്നെ എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഇപ്പം ഓൺലൈൻ വിപണി വളരെധികം സുലഭമാണ് അപ്പം അതുകൊണ്ടുതന്നെ നമുക്ക് വേണമെങ്കിൽ ഈ കാർഷികോല്പന്നങ്ങൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്കത് മാർക്കറ്റ് ചെയ്യാൻ പറ്റും ഏ അപ്പം നമുക്ക് നമ്മുടെ വീടിന്റെ ഉള്ളിൽ തന്നെ ഇരുന്നുകൊണ്ട് നമുക്ക് ഒരു വിപണി കൂടി കണ്ടെത്താം പണ്ടത്തെപ്പോലെ നമുക്ക് മാർക്കെറ്റിൽ കൊണ്ടുപോയി കൊടുക്കണം എന്നില്ല മ് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഓൺലൈൻ നമുക്ക് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഓൺലൈൻ വിപണി കണ്ടെത്താന് പറ്റും അപ്പം അതും നമ്മുടെ ആധുനിക ടെക്നോളജീയുടെ ഫലമായിട്ടാണല്ലോ അപ്പം അതും ഒരു ആധുനികസാങ്കേതികവിദ്യയുടെ ഒരു ഗുണമായിട്ട് ഞാൻ കാണുകയാണ്